ഞാൻ ആചരിക്കുന്ന സാംസ്കാരികോത്സവങ്ങളും സവിശേഷ ദിനങ്ങളുമുണ്ട് ഏതൊരു ജനതയുടെയും സംസ്ക്കാരത്തിൻ്റെ സവിശേഷതകളെ അവരുടെ ഉത്സവാഘോഷങ്ങളിൽ ദർശിക്കാൻ സാധിക്കും അതുപോലെ ചരിത്ര സാംസ്കാരിക പൈതൃകത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാഘോഷമാണ് ഓണം ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഓണം ആഘോഷിക്കുന്നത് മലയാളിയുടെ ഏറ്റവും വലിയ ഉത്സവമാണിത് കേരളത്തിൻ്റെ കാർഷികോത്സവം കൂടിയായി അറിയപ്പെടുന്നു അത്തം നാളിൽത്തുടങ്ങി പത്തു ദിവസം തിരുവോണമായി ഈ പത്തുദിവസവും വീട്ടുമുറ്റത്ത് പൂക്കളം തീർക്കുന്നു ഓണക്കോടിയെന്ന പുതു വസ്ത്രങ്ങളണിഞ്ഞ് ഓണത്തെ വരവേൽക്കുന്നു അതിരാവിലെ കുളിച്ച് പുതുവസ്ത്രങ്ങളണിഞ്ഞ് വീട്ടുമുറ്റത്ത് അതിമനോഹരമായ പൂക്കളമൊരുക്കി തിരുവോണ നാളിൽ ദിവസം തുടങ്ങുന്നു വിഭവ സമൃദ്ധമായ ഓണസദ്യ ഒരുക്കലാണ് ആഹ്ളാദത്തിൻ്റെ ദിനത്തെ ഒന്നുകൂടി ആകർഷകമാക്കുന്നത് പലതരത്തിലുള്ള വിനോദങ്ങളിലും ഈ ദിവസം ഏർപ്പെടുന്നു ഇങ്ങനെ ഉത്സവ ദിവസം വിവിധ കാര്യങ്ങൾ ചെയ്ത് ആഘോഷകരമായി മാറ്റുന്നു